എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ആദ്യകുർബാനയ്ക്കുള്ള ഏർപ്പാടിന് എനിക്ക് ഒരു പത്തിരുന്നൂറ്റമ്പത് പ്ലേറ്റ് ഫുഡ് ഓർഡർ ഓർഡര് വേണമായിരുന്നു അതിന് നിങ്ങൾക്ക് എത്ര രൂപ ഒരു പ്ലേറ്റിന് എത്ര രൂപായാവും നല്ല ഫുഡായിരിക്കണം നല്ല ഫുഡായിരിക്കണം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നല്ലതായിരുന്നെന്ന് പറയണം പിന്നെ ഭക്ഷണം ഒരു പ്ലേറ്റിന് എനിക്ക് ഭയങ്കര ഒത്തിരി പൈസയൊന്നും ആകരുത് പിന്നെ എനിക്ക് ഇച്ചിരി പൈസ കുറച്ച് നിങ്ങള് തരണം തന്ന് തരണം പിന്നെ ഭക്ഷണം ഏത് സമയത്ത് പത്തുമണിക്കാണെങ്കില് ആ പത്തുമണി എന്നുള്ള സമയത്ത് നിങ്ങളെനിക്ക് ഭക്ഷണം കൊണ്ട് തരുവാ സഹകരിക്കണമെന്ന് സഹകരിക്കണം കാര്യം ഇതിന് വരുന്ന മനുഷ്യരെ ഇരുത്തി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോള് നിങ്ങളോടെനിക്ക് പറയാനുള്ളത് ഭക്ഷണം നന്നായിരിക്കണം ഭക്ഷണം നന്നായിരിക്കണം അതുപോലെ ഭക്ഷണവും നന്നായിരിക്കണം അതുപോലെ എനിക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം പ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം വലിയ അളവൊന്നും ഇല്ലെങ്കിൽ തന്നെ പൈസായ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നല്ല ഫുഡായിരിക്കുകയും ചെയ്യണം പറഞ്ഞ സമയത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്യണം എല്ലാവരും ഫുഡിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുകയും അത് നല്ലതായിരുന്നോ എന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഓർഡറും നിങ്ങള്ക്കു തന്നെ തരാവുന്നതാണ് ഭക്ഷണം നന്നായാൽ ആളുകള് ഓർഡര് ചെയ്യാനും നിങ്ങളെ വീണ്ടും വിളിക്കുന്നതായിരിക്കും ഡെലിവറി സമയവും പൈസയും എല്ലാം ഒരുപോലെ ആയാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നല്ല ഭക്ഷണം തരിക റേറ്റ് ഒന്ന് കുറച്ചുതന്നാൽ വലിയ ഉപകാരമായിരിക്കും അതുകൊണ്ട് സമയാസമയത്ത് വരുവാനും എടുക്കുവാനും ചെയ്യുക നല്ല ഫുഡ് എത്തിച്ചു തരാനും ഞങ്ങളെ ഞങ്ങളുടെ ഭക്ഷണ സമയം അനുസരിച്ച് കൊണ്ട് തരാൻ നിങ്ങള് സംയുക്തരാവുക ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി സമയത്ത് എത്തിക്കാനും വിലകുറച്ച് തരാനും എല്ലാം നിങ്ങൾ ക്രമീകരിക്കണമെന്ന് ഷേ ഭക്ഷണം തരുവാനും പറയുന്നു